ഹലോ ഫോൺ കടയല്ലേ എനിക്ക് ഒരു ഫോൺ വേണമായിരുന്നല്ലോ റെഡ്മി നോട്ട് എയ്റ്റ് എട് എത്ര രൂപയാകും ഫോണിൻ്റെ വില പിന്നെ ഇരുപതിനായിരമാകണോ വില അതിൻ്റെ ക്യാമറയെല്ലാം ക്യാരിറ്റി ഉള്ളതാണോ ഓപ്പോ കാണിച്ച് തന്നിട്ടുണ്ട് ഓപ്പോയിൻ്റെ ഇതിൽ എത്രയാണ് റെയ്റ്റ് അതിന് പതിനഞ്ചായിരം ഉറുപ്പിയാണല്ലോ പറയുന്നത് അത് വേണ്ടെനിക്ക് എനിക്ക് റെഡ്മി നോട്ട് എയ്റ്റ് മതി അതാണ് എല്ലാം കൊണ്ടും ക്യാരിട്ടി ഉള്ളത് അതിൻ്റെ ആ പറഞ്ഞ വിലയിൽ നിന്ന് കുറച്ച് കുറച്ച് തരാനും കഴിയുമോ എത്രയാണ് വില കുറയ്ക്കുക